ആ ഹലോ ആ അതേലോ അതേലോ ആരാണ് വിളിക്കുന്നത് ആരാണ് വിളിക്കുന്നത് ആ ഉവ്വ ആ നമ്മുടെ കൊച്ചിന്റെ പേരെന്നായിരുന്നു ആ സോബി ആ ഡിഗ്രികെ ഏതാണ് ഏതിനാണ് പഠിക്കുന്നത് ഏതിനാണ് ഏത് ജോലി ഏത് കോഴ്സിന് ആ ബികോമ് എത്രാം വർഷമാണ് ആ ഉവ്വ് ഉവ്വ് ആ അതേത് എത്രാം വർഷമാണ് മോന് ആ രണ്ടാം വർഷം ഓക്കെ ഓക്കെ പറഞ്ഞോ എന്താണ് ഉദ്ദേശിക്കുന്നത് പിന്നെ തീർച്ചയായിട്ടും ഉണ്ടല്ലോ നമ്മൾ അവിടെ പിന്നെ കരിയറ് ഇതൊക്കെ എപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട് നമുക്ക് പിന്നെ ജെൻറൽ നോളജ് പിന്നെ ക്ലാസ്സ് കൊടുക്കുന്നുണ്ട് പിന്നെ എല്ലാവിധ റീഡിങ്ങ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം നമ്മൾ പരമാവധി പ്രോത്സാഹനം കൊടുക്കാറുണ്ട് പിന്നെ നമ്മുടെ കോളേജിൻ്റെ സൗ എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട് പിന്നെ ക്യാമ്പസ് സെലക്ഷന് ഇത് പഠിച്ച് പോയ പിള്ളേർക്ക് ഒക്കെ ക്യാമ്പസ് സെലക്ഷന് ഇങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട് നമുക്ക് ഇതിന് മുമ്പ് പഠിച്ച്പോയ പിള്ളേർ കുറെ പേര് പിന്നെ ക്യാമ്പസ് സെലക്ഷനൊക്കെ കിട്ടി പോയതാണ് പോയിട്ടുണ്ട് പിന്നെ തീർച്ചയായിട്ടും കൗൺസിലിങ്ങുണ്ട് നമുക്ക് പിന്നെ ഗസ്റ്റായ സൈക്കോളജിസ്റ്റൊക്കെ വന്ന് അത്യാവശ്യം കൗൺസിലിങ്ങുണ്ട് പിന്നെ നല്ല മാർക്കാണ് പിന്നെ പിന്നെ തീർച്ച ആ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആ അങ്ങനെയുള്ള നല്ല കരിയറ് എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ പിന്നെന്താണ് അറിയാനുള്ളത്

ആ പിന്നെ തീർച്ചയായിട്ടും ഇൻറ്റേൺഷിപ്പുണ്ട് പിന്നെ സ്റ്റഡീൽ നമ്മൾ ഓൾറെഡി തന്നെ ശ്രദ്ധിക്കാറുണ്ട് എക്സാമൊക്കെ ഇടക്ക് പിന്നെ ക്ലാസ്സ് ടെസ്റ്റ് ആ ടെസ്റ്റ്കൾ പിന്നെ ഇങ്ങനുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് നമ്മൾ എപ്പോഴും ഇവരുടെ പിന്നെ കരിയറ് എപ്പോഴും നമ്മൾ പിന്നെ നോക്കുന്നുണ്ട് പിന്നെ ഉണ്ടാകാറുണ്ടല്ലോ കാരണം ആ പിന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതായത് ഒരൂ ഫ്രൻഡ്ലി ടോക്കണ് പോലെയാണ് അവരുമായിട്ട് അവര്ടെ പിന്നെ ബേസിക്കായിട്ടുള്ള സ്വഭാവ വിശേഷങ്ങൾ ഇതെല്ലാം അവർ പഠിച്ച് വന്നത് സൗഹൃദപരമായിട്ട് തന്നെ അത് വേണ്ട ഗൈഡൻസ് കൊടുക്കുകയും അവർക്ക് വേണ്ട ഇതെല്ലാം ചെയ്ത്കൊടുക്കാറുണ്ട് അപ്പം അതിലൂടെ അവർക്ക് ഒത്തിരിയേറെ മാറ്റങ്ങൾ ഒത്തിരി മാറ്റങ്ങളുണ്ടാകുന്നുണ്ട് പിന്നെ തീർച്ചയായിട്ടും നമ്മൾ മുമ്പേ സംസാരിച്ചല്ലോ പിന്നെ പ്ലെയിസ്മെൻറ്റ് കാര്യങ്ങൾ പിന്നെ ക്യാമ്പസ് സെലെക്ഷൻസ് ഇങ്ങനെയൊക്കെ കൊടുത്ത് ഇങ്ങനെയൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെ ജെസ്റ്റ് നോക്കീട്ടൊക്കെ റിക്രൂട്മെൻറ്റൊക്കെ ചെയ്ത് പോകുന്നുണ്ട് ഇഷ്ടം പോലെ ഇഷ്ടം പോലെ പിള്ളേർ എല്ലാ വർഷവും നല്ലൊരു ശതമാനം ആൾക്കാർ പോകുന്നുണ്ട് ആ പിന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്ക് വിശ്വസിക്കാം എപ്പോഴും നമ്മളത് കീപ്പ് ചെയ്യുന്നുണ്ട് പരമാവധി കീപ്പ് ചെയ്യുന്നുണ്ട് ആ ഓക്കെ ഓക്കെ ഓക്കെ ബൈ ഓക്കെ